എൻ്റെ കുടുംബത്തിൽ മതപരമായ ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ പലതാണ് അതിൽ ഒന്നാണ് വിഷു വിഷുവിൻ്റെ ഒരു ഐതിഹ്യം എന്തെന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ കംസനെ വധിക്കുമ്പോഴാണ് ആ ഒരു വിഷു എന്നുള്ള ഒരു ഉത്സവം നമ്മൾ ആഘോഷിക്കുന്നത് അങ്ങനെ വിഷുവിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് വിഷുക്കണി വിഷുക്കണി ഒരുക്കുമ്പോൾ അതിൽ ഭഗവാൻ കൃഷ്ണൻ്റെ വിഗ്രഹവും കൂടാതെ തന്നെ പല ധാന്യങ്ങളും പഴവർഗങ്ങളും പച്ചക്കറികളും കണിക്കൊന്നയും പിന്നെ അതുപോലെ ധാന്യങ്ങളും പിന്നെ അവൽ മലർ തുടങ്ങിയ പല കാര്യങ്ങളും വിഷുക്കണിയിൽ നമ്മൾ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അന്ന് അതിൻ്റെ ആഹാരം എന്നു പറയുന്നത് സദ്യ ആയിരിക്കും അല്ലെങ്കിൽ ചില വീടുകളിൽ പായസം ആയിരിക്കും വെക്കുന്നത് പക്ഷേ എൻ്റെ കുടുംബത്തിൽ അന്ന് വിഷുവിൻ്റെ അന്ന് നമ്മൾ സദ്യ വയ്ക്കാറുണ്ട് അങ്ങനെയാണ് അവിടെ ആഘോഷിക്കുന്നത് രാവിലെ ഒരു ആറുമണിക്ക് മുന്നേയാണ് ഈ ഒരു വിഷുക്കണി ഒരുക്കുന്നതും നമ്മൾ കണി കാണുന്നതും എണീറ്റാൽ ഉടൻ തന്നെ നമ്മൾ ആ ഒരു കണി കണ്ടിട്ടാണ് അന്നത്തെ ആ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത് അതുപോലെ തന്നെ ക്ഷേത്രദർശനം നടത്തും കൂടാതെ തന്നെ വീടൊക്കെ എന്താണ് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വിഷു വിഷുവിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട്